ഇന്ത്യയിലെ ഇപ്പോഴത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെ ഉള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈ കലഘട്ടത്തിൽ സംബന്ധിച്ച് വളരെ മികച്ചത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ഹെൽത്ത് കെയർ സെൻററിൽ ആയിക്കോട്ടെ ഒരുപാട് ഫെസിലിറ്റിസ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും കയ്യോ കാലോ എന്തെങ്കിലും ഫ്രാക്ചർ വന്നാല് നമുക്ക് അത് എക്സ്റേ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ക്ലിനിക്കൽ ലാബ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് പെട്ടന്ന് തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ഇപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും അവിടെ ഉള്ള സ്കാനിംഗ് ഫെസിലിറ്റിസ് ആണെങ്കിലും എല്ലാം തന്നെ മികച്ചതാണ് ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് മുടിക്കെണ്ടി ആണ് നമുക്ക് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് പോകുവാണെങ്കില് ക്യാഷ് അധികം ആകുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കൂടുതലും കൂടുതൽ ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ചില ചില ഫെസിലിറ്റി അവിടെ കുറവാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയി നോക്കിയാൽ തന്നെ മരുന്നുകളുടെ അഭാവം കൂടുതലായിട്ട് സർക്കാർ ആശുപത്രികൾ നേരിടുന്നുണ്ട് ഇപ്പോൾ നമ്മള് കാണിക്കാൻ പോയാൽ തന്നെ മരുന്ന് വാങ്ങാൻ പോയാലും കുടുതലും പുറത്ത് നിന്ന് ആണ് മരുന്ന് നമുക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാൽ അധികം ചിലവ് വരില്ല എന്ന രീതിയിൽ ആണ് അവിടെ പോകുന്നത് എങ്കിൽ പോലും അവിടെ മരുന്നുകൾ ചില സമയത്ത് പുറത്ത് നിന്നാണ് വാങ്ങാൻ ആയിട്ട് പറയുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ ഓപ്പറേഷൻ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഒന്നും പറ്റില്ല അപ്പം വലിയ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും അതുപോലെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് ആയിക്കോട്ടെ കേരളത്തിൽ ചില ജില്ലകളിൽ മാത്രമെ അതിൻ്റെ ട്രീറ്റ്മെൻറ് കൊടുക്കുന്നുള്ളു ഇപ്പം എറണാകുളം കോഴിക്കോട് എറണാകുളത്താണ് കൂടുതലും ഉള്ളത് എന്നാൽ കോഴിക്കോട് വായനാട്ടിലോ അല്ലങ്കിൽ മറ്റുള്ള ജില്ലകളിലും അധികം ട്രീറ്റ്മെൻറ്സ് കൊടുക്കുന്നില്ല ഇതൊക്കെ ആരോഗ്യ സംരക്ഷണ സംവിധാനം നേരിടുന്ന വെല്ലുവിളികൾ ആണ്